മാധ്യമങ്ങൾ ഈ പ്രമുഖ താരങ്ങളേ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നാൽ യുവതാരങ്ങൾക്കതൊരു വലിയ തിരിച്ചടിയായി മാറും അവര് അവരെക്കുറിച്ചുള്ള വാർത്തകൾ മറ്റുള്ളവരിലോട്ട് എത്തിപ്പെടാതാകും അതു മാത്രമല്ല ഈ പുതിയ താരങ്ങൾ എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ അവർ അവരേക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതൊന്നുമില്ലാതാകും ഈ പ്രശസ്തിയുള്ള താരങ്ങളുടെ ഒരു മറവിലവരും മറഞ്ഞു പോവും ഇങ്ങനൊരു വർത്താ മൂല്യമില്ലാതായിപ്പോയെങ്കിൽ ആ താരങ്ങളുടെ മോട്ടിവേഷൻ അവർക്കിതിലോട്ട് പിന്നെയും ഇനിയുമൊന്നും മത്സരിക്കാനുള്ള അവരുടെ ആ മനോധൈര്യത്തിനെ ഇത് കുറയ്ക്കും അവര് വിചാരിക്കും അവരെ നാടറിയുന്നില്ല അവർക്കു കിട്ടേണ്ട പ്രസിദ്ധിയും പേരും ഒന്നും കിട്ടാതാവും അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിൽ മിക്കവരും പിന്മാറാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് യുവതാരങ്ങളെ സംബന്ധിച്ച് അവർക്കെപ്പോഴും അവസരങ്ങൾ വേണം അവസരം കിട്ടിയില്ലെങ്കിൽ അവർക്കവരുടെ പ്രതിഭ തെളയിക്കാന് പറ്റത്തില്ല അതു തന്നെയല്ല അവർക്കവരുടെ കഴിവ് ആരുടെയും മുമ്പിൽ ദർശിപ്പിക്കാന് പറ്റാതെയാവും കഴിവു കാണിക്കാന് പറ്റിയാലേ പുതിയ താരങ്ങൾക്ക് അവർക്ക് കിട്ടാം ഇനി മുന്നോട്ടു കിട്ടാനുള്ള അവസരങ്ങൾ കിട്ടത്തുള്ളൂ ഇവർ ഇപ്പോള് ഇപ്പോള് പ്രസിദ്ധിയുള്ള താരങ്ങളുടെ പിന്നിലായി മറഞ്ഞുപോയെങ്കിൽ നാളെ ഇവരെ ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആരുമറിയാതെ പോവും അതു മാത്രമല്ല ഈ താരങ്ങൾ അവരുടെ മനോധൈര്യം വെടിയാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് അപ്പോള് മാധ്യമങ്ങൾ ഒരു വാർത്ത എഴുതുമ്പോൾ അത് താരത്തിൻ്റെ മൂല്യം നോക്കി മാത്രം എഴുതിയാല്പ്പോരാ പക്ഷെ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ കൂടി നോക്കി എഴുതണം അതിപ്പോള് യുവ താരമാണേലും മാധ്യമത്തിൽ പ്രശസ്തനായി നില്ക്കുന്ന ഒരു താരമാണേലും ആരാണേലും അതെഴുതാന് നേരത്ത് അതു വളരെ സൂക്ഷിച്ചെഴുതേണ്ടതാണ് ഇല്ലെങ്കിൽ ഇത് മറ്റുള്ള താരങ്ങളുടെ മറ്റുള്ളവര് മറ്റുള്ളവർക്ക് ഈ കലാപരമായിട്ടോ കായികപരമായിട്ടുള്ള കാര്യങ്ങൾളിലോട്ടു വരാനുള്ള അവരുടെ മനോധൈര്യത്തെ ഇത് കുറയ്ക്ക്ന്നതായിരിക്കും അതു തന്നെയല്ല ഈ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ആൾക്കാരുടെ ആ മനസ്സിൻ്റെ ആ ശക്തിയെ ഇത് തീർത്തുമില്ലാതാക്കും അതുകൊണ്ടുതന്നെ മാധ്യമങ്ങൾക്കിതിൽ വളരെയധികം വലിയൊരു റോളുണ്ടെന്നാണ് പറയാനുള്ളത്